എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് പാചകം ചെയ്യാൻ എനിക്കേറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡും ചിക്കൻ ബിരിയാണിയായത് കൊണ്ടുതന്നെ എനിക്കതുണ്ടാക്കാനാണ് എനിക്ക് ഭയങ്കരിഷ്ടം ഞാൻ ഉണ്ടാക്കിയതിനു ഭയങ്കര ടേസ്റ്റാണ് ഞാന് ആദ്യമൊന്നും എനിക്കങ്ങനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കടയിലൊക്കെ പോയി ഇങ്ങനെ മേടിക്കുമ്പോൾ ഓ നമുക്കും ഇതുപോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട മേടിച്ചിട്ട് ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു നേരത്തേക്കല്ലേ പിന്നെ മേടിച്ച് കഴിക്കൂ അപ്പോൾ നമുക്ക് രണ്ട് നേരമാകുമ്പോൾ നമ്മുടെ വീട്ടില് ഉണ്ടാക്കുമ്പോൾ നമുക്ക് രണ്ട് നേരം വേണേൽ മൂന്ന് നേരം കഴിക്കാമല്ലൊ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം യൂട്യൂബില് നോക്കിയിട്ട് വീണാസ് കറി വേർൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനല് നോക്കിയിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അത്യാവശ്യം നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി എനിക്കേറ്റവും ഇഷ്ടം അത്കൊണ്ട് തന്നെ ടേസ്റ്റ് പക്ഷെ കുറെ പേര് വീട്ടില് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഞാനത് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല കാരണം കുറെ ടൈമെടുത്ത് ചെയ്യേണ്ടതാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ അതൊന്നും ചെയ്യാറില്ല പിന്നെ ആരും ഇല്ലാത്ത സമയം അതായത് നമ്മള് വീട്ടില് ഭർത്താവും കുട്ടിയും ഞാനും മാത്രം ഉണ്ടാവും അപ്പം മാത്രേ ഞാൻ ഉണ്ടാക്കാറുള്ളു അത്കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്